കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഇപ്പോൾ ഓൺലൈനായിട്ടുള്ള നൃത്ത പരിശീലനങ്ങൾ വളരെ കൂടിയിട്ടുണ്ട് നൃത്ത പരിശീലനങ്ങൾ എന്ന് മാത്രമല്ല എല്ലാം ഓൺലൈനിലൂടെയാണ് കോവിഡ് കാലഘട്ടത്തിന് ശേഷം നടക്കുന്നത് ഓൺലൈനിലൂടെ ഉള്ള നൃത്ത പരിശീലനങ്ങൾ ഇപ്പോൾ വളരെ നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നു ഇപ്പം കുട്ടികൾക്ക് ഈ ഓൺലൈനായിട്ട് നൃത്തം പഠിക്കുന്നതിലൂടെ കുട്ടികൾക്ക് ഇപ്പോൾ ഒരു നൃത്ത സ്കൂളിൽ പോകാതെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് അവരുടെ തായ ഒരു സമയത്ത് ഈ നൃത്തം പഠിക്കുന്നതിനും എല്ലാം നടക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആണെങ്കിലും ഇപ്പോൾ ഇഷ്ടം പോലെ നൃത്തങ്ങൾ അതിൽ തന്നെയുണ്ട് ഇപ്പം കുട്ടികൾക്ക് അത് നോക്കി ആണെങ്കിലും പഠിച്ച് ഒരു ഒരു പരിപാടിക്ക് അവർക്ക് അവതരിപ്പിക്കുന്നതിന് ഇതുമൂലം സാധ്യമാകുന്നു നമ്മൾ ഏതെങ്കിലും ഒരു പാട്ട് അടിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡാൻസ് പല തരത്തിലുള്ള ഡാൻസുകൾ നമുക്ക് ഇത് കാണാൻ നൃത്തങ്ങൾ കാണാൻ പറ്റും അതനുസരിച്ച് ഇത് നമുക്ക് പഠിക്കുന്നതിനും ഒരു പരിപാടിയിൽ അവതരിപ്പിക്കുന്നതിനും ഇതുമൂലം സാധ്യമാകുന്നു അതു തന്നെയല്ല ഇത് നമ്മുടെ സമയം ലാഭമാണ് നടക്കുന്നത് സമയ ലാഭം എന്ന് പറയുന്ന നമ്മക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇത് പഠിക്കുന്നതിനും നമ്മൾ ഇപ്പോൾ ഒരു നൃത്ത സ്കൂളിൽ പോയി പഠിക്കുന്നത് പഠിക്കുമ്പോൾ നമ്മൾ അവരുടെ സമയത്തിന് അനുസരിച്ച് വേണം പോകാൻ അതുപോലെ അല്ല ഓൺലൈനായിട്ട് ആണെങ്കിലും നമുക്ക് നമ്മുടെതായ ഒരു സമയത്ത് ഇത് ഇത് പഠിക്കുന്നതിനും നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇത് പഠിക്കുന്നതിനും എല്ലാം സഹായിക്കുന്നു ഇപ്പോൾ ഒരു ഗ്രൂ ഗ്രൂപ്പ് ഡാൻസ് പഠിക്കുന്ന ഒരാൾ ആണെങ്കിൽ ഈ ഗ്രൂപ്പ് ഡാൻസിൽ എത്ര വ്യക്തികളുണ്ടോ അത്രയും വ്യക്തികൾക്കും ഇത് മൂലം ഒരേ സമയത്ത് അവർക്ക് ഇപ്പോൾ ഒരു അധ്യാപകൻ്റെ കീഴിൽ ഒരേ സമയത്ത് പഠിക്കാൻ സാധിക്കയില്ല പല സ്ഥലങ്ങളിൽ ഉള്ള കുട്ടികൾ ആണെങ്കിൽ അവർക്ക് ഇപ്പോൾ ഈ ഓൺലൈനായിട്ട് ആണെങ്കിൽ ഇവർക്ക് ആദ്യം അത് അവരുടെ ഇഷ്ടമുള്ള സമയത്ത് പഠിച്ച് ഇവർക്ക് നൃത്തം അവതരിപ്പിക്കുന്നതിന് സാധിക്കുന്നു

അങ്ങനെ ഈ ഓൺലൈനായിട്ടുള്ള നൃത്തപരിശീലനങ്ങൾ നൃത്ത വ്യവസായ നല്ല രീതിയിൽ നൃത്ത വ്യവസായം ത്തെ സ്വാധീനിക്കുന്നുണ്ട് ഇപ്പം ഇഷ്ടം പോലെ ഓൺലൈൻ നൃത്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട് നൃത്ത അക്കാദമികളുണ്ട് അവരിൽ അവരെ നൃത്തം പഠിപ്പിക്കുന്നത് വഴി ഇഷ്ടം ഒത്തിരി കുട്ടികൾ നൃത്തം പരിശീലിപ്പിക്കുന്നതിന് അവർക്ക് സാധിക്കുന്നു ഇത് മൂലം കുട്ടികൾക്ക് ഈ പഠിക്കുന്നവർക്ക് മാത്രമല്ല നൃത്തം പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഇതൊരു നേട്ടം കൂടിയാണ് അവർക്ക് ഇപ്പം അവരുടെ വീട്ടിലിരുന്നോ എവിടെ നിന്ന് ആണെങ്കിലും ആ നൃത്തം പഠിപ്പിച്ചാൽ അത് വീഡിയോ പിടിക്കുന്നു വീഡിയോ പിടിച്ച് വീഡിയോ വഴി ബാക്കി പഠിക്കാനുള്ളവർക്ക് അത് അവരെ പഠിച്ച് അവർ പല സ്ഥലങ്ങളിൽ നിന്നും അവർക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഓൺ ഓൺലൈനായിട്ടുള്ള നൃത്ത പരിശീലനങ്ങൾ വളരെ കൂടുതലാണ് അത് വളരെ മെച്ചപ്പെട്ട നിലവാരം തന്നെ ഇപ്പോൾ ഈ ഈ നാളുകളിൽ കാഴ്ച വെക്കുന്നുണ്ട് നൃത്തം എന്ന് മാത്രമല്ല എല്ലാവിധ എല്ലാവിധ പ്രോഗ്രാമുകളും ഇപ്പോൾ ഓൺലൈനിലൂടെയാണ് നടക്കുന്നത് ഇത് നല്ല രീതിയിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും മെച്ചപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സമയം തന്നെയാണ് സമയം നമ്മുടെ ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ഇത് പരിശീലിക്കുന്നതിന് സാധിക്കുന്നുണ്ട് അതാണ് ഏറ്റവും മെച്ചപ്പെട്ട കാര്യം എന്ന് പറയുന്നത്